ഇപ്പോൾ എൻ്റെ പ്രദേശത്തെ പൊതുമേഖല ബാങ്കെന്ന് പറയുമ്പോൾ ഞാൻ നോക്കുന്ന അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എസ് ബി ഐ ഉണ്ട് പിന്നെ കനറാ ബാങ്കുണ്ട് പിന്നെ ഇവിടെയുള്ളത് ആ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആ അതും പബ്ലിക് സെക്ടർ ബാങ്ക് തന്നെയാണ് ഇപ്പോൾ ഇതില് നമുക്ക് വായ്പക്ക് ഇതാ ഇപ്പോൾ ഓരോ ലോണും ഓരോ ഇതായിട്ടാണ് ഇപ്പോൾ കാനറയിൽ നോക്കുകയാണെന്നു പറയുമ്പോൾ നമുക്ക് എജുക്കേഷൻ ലോണിന് അത്ര പലിശയും കാര്യങ്ങളൊന്നും വരില്ല പക്ഷേ നേരെമറിച്ച് എസ് ബി ഐയിൽ ആണെങ്കിൽ പതിനഞ്ച് ശതമാനം പലിശയുണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിലും അത്ര പലിശയില്ല പിന്നെ ഓരോ തരത്തിലും ഓരോ അതായത് ഓരോ ഇൻഷുറൻസ് അല്ലെങ്കിൽ ലോൺ ഓരോ ബാങ്കിലേക്കും ഓരോ തരത്തിലാണ് അപ്പോൾ എന്നാൽ പക്ഷേ ചിലത് കോമണായിട്ടുണ്ട് ഇപ്പോൾ നമ്മള് നോക്കുകയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കാർഷിക ലോണ് കാർഷിക ലോൺ എല്ലാത്തിനും മിക്ക ബാങ്കുകളിലും നാല് ശതമാനം പലിശയാണ് കിട്ടണത് നമ്മളിപ്പോൾ പൊതുമേഖല ബാങ്കുകളില് ആണ് ഇപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിനേക്കാട്ടിലും ഇപ്പോൾ നമുക്ക് മിച്ചം അല്ലെങ്കിൽ കുറച്ചുംകൂടെ വിശ്വസിക്കാൻ പറ്റണ ബാങ്ക് നമുക്ക് പൊതുമേഖല ബാങ്ക് തന്നെയാണ് പലിശ കുറച്ച് കുറവാണെങ്കിലും നമ്മുടെ പൈസ കറക്റ്റ് സുരക്ഷിതമായിരിക്കും അതിന് നമുക്ക് ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ടിവരില്ല അധികം